നമ്മുടെ സ്കൂളുകളിലൊക്കെ സാധാരണ പല കഴിവുകളും പല സ്വഭാവങ്ങളും അങ്ങനെയല്ല പല പ്രത്യേകതകളുമുള്ള കുട്ടികളാണുള്ളത് അതൊക്കെ കണ്ടു പിടിക്കാനാണ് ശരിക്കും ഈ സ്കൂൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത പഠന ശൈലികൾ കഴിവുകൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയാണ് കോ സ്കൂളുകൾക്കാവശ്യം ആ സമയത്താണ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ അറിവുകളൊക്കെ കടന്നു ചെല്ലാനും അത് മറ്റുള്ളവരെ കണ്ടു പഠിക്കാനും അതായത് അവനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നു നോക്കാനും ഒക്കെയായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കഴിവില്ലാത്തതാണെങ്കിൽ ആ രണ്ട് തരം കഴിവുകളുണ്ടല്ലോ ആർജ്ജിതവും ആരോപിതവും ആർജ്ജിതമെന്നു പറഞ്ഞാൽ നമ്മൾ ആർജ്ജിച്ചെടുക്കുന്ന ആരോപിതമെന്നു പറഞ്ഞത് നമുക്ക് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന അതായത് നമുക്ക് ജന്മനാ ഇൾ ഉള്ള കഴിവുകൾ അപ്പം അങ്ങനെയുള്ള കഴിവുകളെന്നൊക്കെ പറയുമ്പം അതു നമുക്ക് ആരോപിതമായ കഴിവുകൾ നമുക്കങ്ങനെ ആർജ്ജിച്ചെടുക്കാൻ പറ്റും പക്ഷെ ആർജ്ജിതമായ കഴിവുകളിൽ വ്യത്യസ്തമായ കഴിവുകളുള്ളവരുടെ കൂടെ ജീവിച്ചൊക്കെ കഴിയുമ്പോൾ അല്ല അവരെ കണ്ടു പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അതു കൊള്ളാമല്ലോ എന്നൊക്കെ തോന്നി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയുന്നതാണ് അങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ ശരിക്കും സ്കൂളിൽ ഉൾക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രം മതി എന്ന ഒരു അഭിപ്രായത്തിലേക്ക് നമുക്ക് ഒതുങ്ങാനായിട്ട് പറ്റില്ല കാരണം എൻ്റെ സ്കൂളിലിപ്പോൾ പലതരം കഴിവുള്ളവർ ആയിരിക്കും അല്ലെങ്കിൽ അവർ ഒഴിവാക്കുക എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സാമൂഹിക അസമത്വത്തിൻ്റെ ഭാഗമാണ് ഈ അസമത്വം വർദ്ധിക്കുന്നതു കൊണ്ട് തന്നെയാണ് ഇത് നമ്മുടെ ഗാന്ധിജിയും അങ്ങനെയുള്ളവരന്നേ ഈ ന്നെ സമത്വത്തിനു വേണ്ടി വാദിച്ചത് ശ്രീനാരായണ ഗുരു അയ്യപ്പ സ്വാമികൾ അങ്ങനെയുള്ള കുറേ പേരുകൾ കുറേ ആളുകളിങ്ങനെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമത്വത്തിനു വേണ്ടി എന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ബുദ്ധിപരമായ പുറകോട്ടു നിൽക്കുന്ന കുട്ടികൾക്കുള്ളത് അല്ലാത്ത എല്ലാ കുട്ടികൾക്കും സ്കൂളുകൾ അനുവദനീയമാണ് എന്നു തന്നെയാണ് എൻറ്റൊരഭിപ്രായം കാരണം സ്കൂളുകളാണ് കുട്ടികളെ മാക്സിമം സപ്പോട്ട് ചെയ്യേണ്ടത് വളർത്തി കൊണ്ടു വരുന്നത് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ മാത്രം ഇരുന്നാൽ പോരായിരുന്നൊ ഇത്ര മാത്രം കുട്ടികൾ കഴിവുകൾ ആർജ്ജിക്കാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ എനിക്കും ഇത് ഇത്ര മാത്രം ആകാൻ സാധിക്കുമെന്ന് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നത് അവൻ്റെ സ്കൂളുകളും അവൻ്റെ സഹപാഠികളും അദ്ധ്യാപകരുമാണ് മാതാപിതാക്കളുടെ കഴിവുകൾ മാത്രമല്ല കുട്ടികളെ സ്വാധീനിക്കുന്നത് അദ്ധ്യാപകരുടെയും അതുപോലെ തന്നെ സഹപാഠികളുടെയും കൂട്ടുകാരുടെയും ഒക്കെയാണ് എ ഞാൻ എന്തായി തീർന്നിരിക്കുന്നോ അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്നത് എൻ്റെ അദ്ധ്യാപകരും എൻ്റെ സഹപാഠികളും എൻ്റെ കൂട്ടുകാരുമൊക്കെയാണ് ഞ ഒ യാതൊരു വിധ കഴിവുകളുമില്ലാതെ വളർന്നു വന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ ഇന്ന് എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നാല് പേരുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് എൻ്റെ അദ്ധ്യാപകരിൽ നിന്നും എൻ്റെ സഹപാഠികളിൽ നിന്നും മാത്രം ഞാൻ ആർജ്ജിച്ചെടുത്താണെന്ന് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും മാത്രമല്ല കഴിവുകളുടെ കാര്യത്തിൽ നമുക്കൊരു ലിമിറ്റേഷനില്ല അത് ഒരു പടം വരക്കുന്ന മാത്രമല്ല ഒരു പാട്ട് പാടുന്നതു മാത്രമല്ല കുക്കിങ്ങല്ല എന്താ പറയുന്നത് ഒരു പാട്ടെഴുതുക കഥ എഴുതുക ഇതൊന്നുമല്ല ശരിക്കൊരു പാചകമെന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കഴിവാണ് അതു നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടു കൊണ്ടു വരേണ്ടതാണ് അതൊക്കെ വലിയ നമുക്ക് ആർജ്ജിച്ചെടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ എൻ്റൊരു കൂട്ടുകാരൻ്റെ ഭക്ഷണം രുചിക്കുന്നതു കൊണ്ടായിരിക്കും ഞാൻ ഇപ്പം എൻ്റെ ഒരു കഴി എന്നാ എനിക്കൊരു ഇതുണ്ടാക്കണമെന്നു ഞാൻ തീരുമാനിക്കുന്നു അതു ഞാൻ ആർജ്ജിച്ചെടുത്താലോ അതെനിക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് അതിനെ നന്നായിട്ട് വളർത്തിയെടുത്ത് ഞാനൊരു പുതിയ കഴിവ് വളർത്തിയെടുക്കുകയാണ് അതുപോലെ തന്നെ സ്പോർട്സ് അങ്ങനെയുള്ള കഴിവുകളൊക്കെ പ്രാക്ടീസ് കൊണ്ട് നേടാൻ പറ്റും പക്ഷേ അതിൻ്റകത്തൊരു എന്ന ബ്ലെസ്സിങ്ങും കൂടി ദൈവത്തിൻ്റെ ഒരനുഗ്രഹം കൂടി അതിനകത്താവശ്യമാണ് മാത്രമല്ല ഇപ്പം പല നേട്ടങ്ങളും കൊയ്യുക എന്നതൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് സ്കൂളുകളിലൊക്കെ ശരിക്കും നമ്മുടെ പഠന കളരി പണ്ടൊക്കെ പഠന കളരി കളരിയിൽ നിന്നല്ലേ അഭ്യസിച്ച് അഭ്യസ അഭ്യാസം നടത്തിയെടുക്കേണ്ട സ്ഥലങ്ങൾ അഭ്യസിച്ച് അഭ്യസിച്ച് സ്കൂളുകളിൽ ഇതിൻ്റകത്ത് പൂർണ്ണമായിട്ട് പങ്കെടുക്കണമെന്നു തന്നെയാണ് എനിക്ക് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത് സ്കൂളുകൾക്ക് എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ഇത് എനിക്ക് തോന്നുന്നത് സ്പെഷ്യലായിട്ടുള്ള കുട്ടികളെ പോലും മറ്റു കുട്ടികളുടെ കൂടെ കൂട്ടി സ്പെഷ്യൽ സ്കൂളിനെ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്കു പോകാൻ സാധ്യതയൊൾ ഇല്ലാത്ത അതായത് അത്ര മാത്രം ഐ ഡി കുട്ടികൾ അവരെയൊക്കെ സ്കൂളിൻ്റെ ഒരിതിലേക്കു കൊണ്ടു വന്ന് അവരെ ഭാവിയിൽ വളരെ കഴിവുള്ളവരായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സമൂഹ മാനേജ് ചെയ്യത്തക്ക വിധം അല്ലെങ്കിൽ ഒരു കമ്പനി മാനേജ് ചെയ്യത്തക്ക വിധം വലിയ ആൾക്കാരായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും അതു കാരണം ഇവിടെ ഞാൻ എൻ്റെ കൺമുൻപിൽ തന്നെ ഒരുപാട് തെളിവുകൾ കണ്ടിട്ടുണ്ട് പിന്നെ ആ ഐ ഡിയായിരുന്നു എന്നു കരുതിയിരുന്നവരൊക്കെ പയ്യെ ഒരു ബസ്സിനു കണ്ടക്ടറായിട്ട് കയറി പിന്നെ അവിടുത്തെ ബസ്സിന് ആൾക്കാരൊക്കെ നിയന്ത്രിച്ചും മാനേജ് ചെയ്തും അങ്ങനെയൊക്കെ വന്നു വന്ന് വന്ന് ഒരു കഴിവുള്ളൊരു ആളായിട്ട് അതായത് എൻ്റെ നിയന്ത്രണത്തിലേക്ക് എല്ലാവരെയും കൊണ്ടു വരാൻ തക്കവിധം പ്രാപ്തിയുള്ള ഒരാളായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ നിസ്സാരമായ കഴിവുകളുടെ പേരിൽ ആരെയും മാറ്റി നിർത്തേണ്ടത് ഇല്ലത് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു പക്ഷേ അവരുടെ കഴിവതല്ലായിരിക്കും ഇപ്പം എല്ലാവരെയും പോലെ പഠിക്കാനെനിക്ക് കഴിവില്ലായിരിക്കും പക്ഷെ എനിക്ക് അതിനേക്കാളും നേട്ടം കൊതിക്കാൻ പറ്റുന്നത്ര കഴിവുകളുണ്ടായിരിക്കും അതല്ലെ ഒരു പക്ഷെ ഈ പഠിത്തം എന്ന കഴിവിനേക്കാൾ വലുതായിട്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ കൂടുതൽ പഠിച്ച് പഠിച്ച് പോകുന്നു എന്നതിനേക്കാൾ ഒരു സമൂഹത്തിന് അനവധി കഴിവുള്ളവരെ ആവശ്യമുണ്ട് ഇപ്പം പഠിക്കാൻ കഴിവുള്ളവർ മാത്രമേ ഉണ്ടായിട്ട് കാര്യമില്ല കൃഷി ചെയ്യാൻ ആവശ്യമില്ലെ ഡ്രൈവ് ചെയ്യാൻ ആവശ്യമില്ലെ ആ ആ അറി അറിയാവുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ വന്നാൽ മാത്രമേ ഒരു സമൂഹത്തിനെ വളർച്ചയ്ക്ക് മുന്നോട്ടു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം എല്ലാ സ്കൂളുകളും എല്ലാ പഠന കളരികളാണ് പഠന കളരികൾ എല്ലാ വിധ കഴിവുള്ളവരെയും ഉൾപ്പെടുത്തണം ഈ കഴിവുകൾ മറ്റുള്ളവരിലേക്ക് വ്യാപിച്ച് ഒരു പക്ഷേ അതദ്ധ്യാപകരുടെ ജീവിതത്തെ കൂറ്റി സ്വാധീനിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇതങ്ങനെ വ്യാപിച്ച് കൂടുതൽ വൈവിധ്യമാർന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനായിട്ട് ഇതു സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരുപാട് ഉദാഹരങ്ങൾ കൺമുൻപിൽ കണ്ടിട്ടുള്ളതു കൊണ്ടു തന്നെ ഇതിനെ ഉറപ്പി ഉറപ്പിച്ച് പറയാനായിട്ടും ഇതിൻ്റകത്ത് പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കാനായിട്ട് അതൊരു സന്ദേശമായിട്ടു തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടിപ്പം അതിനായിട്ടൊരു പൂർണ്ണമായ ബോധ്യവുമുണ്ട് അതു തന്നെ വ്യത്യസ്ത പഠന ശൈലികൾ കഴിവുകൾ പഠനശൈലികളെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റകത്ത് ഒരുപാട് വൈവിധ്യങ്ങൾ നിറയുന്നുണ്ട് കഴിവുകൾ ഉള്ളവരെ വിദ്യാർത്ഥികളെ സ്കൂളുകൾ ഉൾക്കൊള്ളാൻ കഴിയും കഴിയുമെന്നു തന്നെയാണ് ഞാനും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് പക്ഷെ അതിൻ്റകത്ത് ചിലപ്പം ചില കഴിവിന് പുറകോട്ട് നിൽക്കുന്നവർക്ക് ടീച്ചേഴ്സിൻ്റെ ഒരു പിൻബലം കിട്ടി അവർ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാലും കൂടുതൽ മാത്രമേ അത് പോകുകയുള്ളൂ എന്നതാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഉത്തമമായ ഒരു വിശ്വാസം